എടാ ആ ഷാനവാസേ നമുക്ക് പോവല്ലേ വയനാട് പോവല്ലേ

ഞാനിപ്പോൾ ഇറങ്ങി ഇപ്പം ഇറങ്ങി ഇറങ്ങി ഇവിടുന്നെറങ്ങി പിന്നെ എവിടുന്നാണ് ബെസ്സ് കയറാ മഞ്ചേരി മാഞ്ഞാലി ബെസ്സ് എവിടുന്നാണ് കിട്ടുക എത്ര മണിക്കാ രാത്രി പത്ത് മണിക്കല്ലേ എന്നാൽ ഇറങ്യാലോന്നാ ആ ലേറ്റാവണ്ട ബെസ്സ് പോയാലേ പണിയാവും എന്നാൽ പൂവാം ഒക്കെ സെറ്റല്ലേ പോവല്ലേ ആ ആയിക്കോട്ടെ ഇവിടന്നങ്ങട് പോവാം ആ ഓക്കെ പിന്നെ ഏതാ റൂട്ട് പോണത് ആവോ അല്ലെ ഇങ്ങനെയാവൂല്ലെ പോണത് അ ബുക്കക്കെ ചെയ്തിട്ട് നീ പോകണെ അതേ അല്ലേ ആ അപ്പം കുഴപ്പമില്ല സെറ്റാണ് ആ ഒന്നൊരു ഫ്രെണ്ട് കൂടി കയറാനുണ്ട് മുക്കത്ത്ന്ന് അ മുക്കം ഭാഗത്തുന്ന് ആ അപ്പം അങ്ങനെ പോവാല്ലെ നമുക്ക് അത് ശരി പിന്നെങ്ങനെയാണ് റൂട്ട് വേറെങ്ങനെയാണ് വരുന്നത് ആ ചെറായി അടിവാരെന്താ ഇതുണ്ടോ വ്യൂ പോയിൻറ്റുണ്ടോ ഫോട്ടോ എടുക്കാമ്പറ്റോ അടിവാരത്തക്കെ

നാലാ വളവിലല്ലേ കാഴ്ചകൾ കാണാമ്പറ്റും അതേല്ലേ ടീ കുടിയ്ക്കാല്ലെ അതേല്ലെ നല്ല ചായ കിട്ടുംന്ന് തോന്ന്ന്നുണ്ട്

ആ ഇതല്ല റൂട്ടാല്ലെ അപ്പം ഈ ചൊരം വഴി പോണം പോകുമ്പോൾ ആ എത്ര ഹെയർ പ്പിൻ വളവുണ്ട് ഏകദേശം ആ ഒൻപതണ്ണം വരണ്ണ്ടല്ലേ ആ ഏത് ലെക്കിടിപ്പോല്ലാല്ലെ അവിടെങ്ങനെ ഫോട്ടോ ഷൂട്ടക്കെ കിട്ടോ അതേല്ലെ ആ പിന്നെ നമ്മൾ കെ എസ് ആർ ടി സീലല്ലേ പോണതപ്പം അതിൻടേതായൊരെക്സ്പീരിയൻസ്സുണ്ടാവും ചൊരം കയറുമ്പഴങ്ങനിങ്ങനക്കാവുമ്പോൾ സെറ്റാണ്

പ്ലേസ്കൾ കാണാനുണ്ട് അപ്പോൾ ബസ്സ് പോവുമ്പത്തന്നൊരുപാട് കാണോലോല്ലേ അതേല്ലെ ആ അതൊരനുഭൂതി തന്നെയാണ് അത് ശരി ആ ആ എത്രയാവും കെ എസ് ആർ ടി സിക്ക് ചാർജെത്ര വരണത് ആ ഓക്കെ ഓക്കെ അഫോഡ് ചെയ്യാൻ പറ്റുവല്ലോ എന്നാൽ പോയി നോക്കാം ഓക്കെ